ഫോട്ടോയിലൂടെ ഇന്ത്യയെ കാണിക്കാനൊരവസരം ലഭിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലോ ഇന്ത്യയെന്ന് പറയുന്നതുതന്നെ മൾട്ടിപ്ലി സിറ്റീസിൻറ്റെ ഒരു രാജ്യമാണ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടിപ്പം കലകളുടെ കേസെടുത്താൽ നമുക്ക് കഥകളി കഥകളിയൊക്കെ വച്ചിട്ട് ഇന്ത്യയെ കാണിക്കാം പിന്നെ ഉത്സവങ്ങൾ പെരുന്നാളുകൾ പിന്നെ ഓരോ സംസ്ഥാനത്ത് ഓരോ വ്യക്തികൾ അവരുടെ വസ്ത്രധാരണ രീതികളെ ഇതൊക്കെ വച്ചിട്ട് നമുക്ക് കാണിക്കാം പിന്നെ ദേശീയ മൃഗങ്ങളില്ലേ ഇവിടെ ഇന്ത്യയിൽ തന്നെ കാണുന്നോരോ മൃഗങ്ങളുണ്ട് പുലി പുലി പിന്നെ മയിൽ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ വച്ചിട്ട് നമുക്ക് ഇന്ത്യയെ കാണിക്കാം പിന്നെ കലാരൂപങ്ങൾ കലാരൂപങ്ങൾ വച്ച് കാണിക്കാം ടൂറിസ്റ്റ് പ്ലേസസ് ഇന്ത്യയിലെ മോസ്റ്റ് ബ്യുട്ടിഫുള്ളായിട്ടുള്ള അങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസസൊക്കെയില്ലേ അതൊക്കെ നമുക്ക് കാണിക്കാം